ആ മേഡം പറഞ്ഞോളൂ ആ അപ്പോൾ ആ കോഴിക്കോട് തന്നെയുണ്ടലോ ഹോസ്പിറ്റല് കാര്യങ്ങളൊക്ക അവിടെ മെഡിക്കൽ കോളേജൊക്കെ നല്ല രീതിയിൽ കോഴിക്കോട് ഇപ്പോൾ ബേബി മെമ്മോറിയലുണ്ട് പിന്നെ നിംസ് ഉണ്ട് പിന്നെ നമ്മടെ ഗവൺമെന്റിന്റെ തന്നെ മെഡിക്കൽ കോളേജുണ്ടല്ലോ അവിടേയും കുഴപ്പമൊന്നുമില്ല ആ നല്ലത് ഇപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിംസ് ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടു എനിക്ക് തോന്നിയത് കാരണം അവിടെ എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അതായത് നമുക്കിപ്പോൾ എം ആർ ഐ ആണെങ്കിലും സി റ്റി സ്കാൻ ആണെങ്കിലും ഇപ്പോൾ എല്ലാത്തിന്റേം ഇപ്പോൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ എ ടു ഇസ്സഡ് കാര്യങ്ങളും അവിടെ ചെയ്യുന്നതാണ് അതെല്ലാം അവിടെ തന്നെയുണ്ട് എല്ലാം എല്ലാം എന്തൊക്കെയാണോ ഒരു രോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവശ്യമുള്ളത് അതെല്ലാം അവിടെത്തന്നെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അ മെഡിക്കൽ കോളേജിൽ അതായത് നിംസിൽ ആ നിംസിൽ അവിടേയും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് ചെറിയ പ്രശനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് കാരണം എന്നാണ് വെച്ചാൽ അവിടെ ഭയങ്കര ആൾക്കാർ കൂടുതലാണ് അപ്പം നമ്മക്ക് പോയി ക്യൂ നിന്ന് ഒ പി അങ്ങനത്തെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കരെ ബുദ്ധിമുട്ടണ്ടണ്ടാവും അല്ലാണ്ട് വേറെ പ്രശനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ബുക്ക് ചെയ്തിട്ടൊക്കെ കിട്ടും അത് നി അത് ഇവിടുത്തെ ഫാർമസീല് വന്നിട്ട് കളക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലുണ്ടാവുലാ അവരുടെ വീടുകളിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങളവിടേക്ക് ആ അവിടുത്തെ ഫാർമസീൻറെ അവിടെ പോയിട്ട് നിങ്ങൾ നമ്പറ് കളക്ട് ചെയ്യുക അല്ലെ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അടുത്ത് എവിടേലും ഉണ്ടെങ്കിൽ അവരോട് നമ്പറ് കളക്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ടോക്കൺ എത്രയാന്ന് നോക്കിയാൽ മതി എപ്പോഴാണ് നോക്കുന്നേന്ന് അവർ പറഞ്ഞ് തരും ഇപ്പോൾ മെയിനായിട്ട് കോഴിക്കോടുള്ളത് ബേബി മെമ്മോറിയലും നിംസും ആണ് കേട്ടോ അവിടിപ്പം നല്ലതായിട്ടുള്ളത് ആ അത് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബുക്ക് ചെയ്ത് തരും കുഴപ്പമില്ല ഞങ്ങൾ ബുക്ക് ചെയ്ത് തരാം ഓക്കെ ഓക്കെ എന്നാൽ വിളിച്ചാൽ മതി